എൻ്റെ പ്രദേശത്തും എൻ്റെ വീട്ടു പ്രദേശത്തും വളരെ അധികം സന്തുഷ്ടമായി ആചരിക്കുന്ന ഒരു ആഘോഷമാണ് വേല എന്ന് പറയുന്നത് ഈ വേലയ്ക്ക് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്കും അനുവാദമുണ്ട് എന്നാൽ അവരെ അധികം അവിടെ കാണാറില്ല ഈ ആചാരം എന്നു പറയുന്നത് അല്ലെങ്കിൽ വേല എന്നു പറയുന്നത് വളരെ അധികം വിനോദം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആചാരമാണ് എന്നുതന്നെ പറയാൻ സാധിക്കും കാരണം ഇതിൽ വളരെ അധികം താല്പര്യപ്പെടുത്തുന്ന ആനകളും പടക്കങ്ങളും ആൾക്കാരും ഭക്ഷണ സാമഗ്രികളും ഉണ്ടാകുന്നതാണ് ഈ വേലയ്ക്ക് പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശങ്ങൾ കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ് ഈ വിനോദ സഞ്ചാരികൾ ഈ ആഘോഷത്തിന് ആഘോഷത്തിലേയ്ക്ക് അവർ പങ്കെടുക്കുമ്പോൾ അവർക്കും വളരെ അധികം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആചാരം അവർ കാണണം കാരണം അവരുടെ നാട്ടിൽ ഇതുപോലുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ടും അവർക്ക് ഇത് ആദ്യമായി കാണുന്നത് പോലെയാണ് അവർ ഇത് വളരെയധികം നല്ല രീതിയ്ക്ക് ഇതിൻ്റെ ഭാഗമാകാനും അവർ ശ്രമിക്കും ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഒരു സത്യം